ഇപ്പോൾ എങ്ങേനെയാന്നുവെച്ചാല് ഞാന് പുറമേനിന്നു പിടിച്ചു കയറ്റാന് നോക്കിട്ട് നടക്കുന്നില്ല അപ്പോള് അവന് അടിലോട്ട് അടിലോട്ട് മുങ്ങി മുങ്ങി പോവ്വാ അവന് കൈയും കാലും ഒക്കെ ഇട്ട് മേലേക്ക് പുറത്തേക്ക് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കയറ്റാന് ഒന്നും അങ്ങെനെ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം കൂടെയുള്ളവന്മാര്ക്കും വലിയ രീതിയിലെന്നും നിന്തല് അറിയില്ലായിരുന്നു പിന്നെ ഞാന് ഞാനും നീന്തി മെല്ലെ ഇറങ്ങി വെള്ളത്തില് ഇറങ്ങിട്ട് പിടിച്ചുകയറ്റാന് നോക്കി പക്ഷെ നടക്കുന്നില്ല എന്നിട്ട് അവന് ആഴത്തിലേക്ക് പോയി പിന്നെ ഞാന് വേഗം ചാടി ഞാൻ ഉള്ള നീന്തൽ എനിക്ക് ചെറുതായിട്ട് അറിയുള്ളു എന്നാലും ഉള്ള ഒരു നീന്തലിൽ ഞാന് എങ്ങനേന്നു വെച്ച് കഴിഞ്ഞാല് ഞാന് അവനെ എന്തു ചെയ്യ്തു പിടിച്ചു എന്റെ തോള്ളത് കയറിനിന്നു എനിക്ക് ശ്വാസം കിട്ടാണ്ടായി പെട്ടെന്ന് ബാക്കിയുള്ളവരും കൂടെ ചാടി അവനെ വേഗം പിടിച്ചുകയറ്റി അങ്ങനെ രക്ഷപെട്ടുത്തിട്ടുണ്ട് പിന്നെ ഞാന് നീന്തല് പഠിപിച്ചിട്ടുണ്ടോന്നു ചോദിച്ചാല് ഇണ്ട് ഞാന് ചിലരെ നിന്തല് പഠിപ്പിക്കാന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല കാരണം അവര്ക്കും ഒരു താല്പര്യം വേണം അവര് കൈയും കാലും ഒക്കെ അടിച്ചിട്ട് അവര്ക്കും വെള്ളത്തില് പൊങ്ങി കിടക്കാനുള്ളൊരു ഇതുടെങ്കിലെ അവര്ക്കും നീന്തൽ പഠിക്കാനുള്ള കഴിവ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനൊക്കെ ചെയ്യ്തിട്ടുണ്ട്